ജലം അമൂല്യമാണ് അത് പാഴാക്കരുത് ജലം ഒരു ജീവൻ്റെ നിലനിൽപ്പിൻ്റെ അത്യന്താപേക്ഷിതമായ ഘടകമാണ് ജലം ജലമില്ല എങ്കിൽ ആളുകളുടെ ജീവൻ്റെ നിലനിൽപ്പിനെ തന്നെ അത് ഹാനികരമായി ബാധിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ് അതുകൊണ്ട് തന്നെ കടുത്ത ജലക്ഷാമവും വരൾച്ചയും എല്ലാ ഗ്രാമങ്ങളേയും അതുപോലെ ഗ്രാമങ്ങളെ മാത്രമല്ല മാത്രമല്ല ജനജീവിതത്തെ മുഴുവൻ സ്തംഭിപ്പിക്കുന്ന ഒരു സംവിധാനമാണ് ഈ ജലക്ഷാമവും വരൾച്ചയും അതുപോലെ അതുകൊണ്ട് തന്നെ ജീവിതത്തെ അത് ഇന്ന് വളരെ ആഗ്രാഹ്യമായിട്ട് അത് ബാധിക്കും വളരെ ആഴത്തിൽ അത് ബാധിക്കുന്ന ഒരു സംവിധാനമാണ് കാരണം ഇന്ന് അത് ആളുകളുടെ ജീവന് തന്നെ അത് ഉവ്വ് ഹാനിയായിട്ട് മാറുന്ന ഒരു സംവിധാനമാണ് ജലക്ഷാമവും വരൾച്ചയും മൃഗങ്ങൾ ചത്തു ഒടുങ്ങുന്നതും ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും കൃഷികൾ നശിക്കുന്നു ഇന്ന് ആളുകൾക്ക് പല ആരോഗ്യ പ്രശ്നങ്ങളും സംഭവിക്കുന്നതുമൊക്കെ കടുത്ത ജലക്ഷാമവും വരൾച്ചയുമൊക്കെ വരുന്ന ആ സമയങ്ങളിൽ നാം കാണാറുണ്ട് അതുകൊണ്ട് ജലത്തിൻ്റെ സുലഭത ലഭ്യത ഉറപ്പു വരുത്തേണ്ടത് ഒരു അത്യന്ത്യാപേക്ഷിതമായ കാര്യമാണ് ഇപ്പോൽ ചില സമയങ്ങളിലൊക്കെ വേനലിലൊക്കെ കടക്കുന്ന സമയങ്ങളിൽ കാലാവസ്ഥകൾ കാലാവസ്ഥ വ്യതിയാനങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ നമുക്ക് വരൾച്ചയൊക്കെ അങ്ങനെ കൂടുതലായിട്ട് ഉണ്ടാവുകയും ആ അത് ജലക്ഷാമത്തിലേക്കും മറ്റ് പ്രകൃതി ക്ഷോഭങ്ങളിലേക്കുമൊക്കെ പോകാറുണ്ട് അങ്ങനെ പല വർഷങ്ങളിലും നമുക്ക് അങ്ങനെ ജലക്ഷാമവും വരൾച്ചയും വരാറുണ്ട് അത് ഇപ്പം ആളുകളുടെ കൃഷികളൊക്കെ പൂർണ്ണമായിട്ടും നശിക്കുന്ന ഒരു സംവിധാനമൊക്കെ പല വർഷങ്ങളിലും സംഭവിക്കാറുണ്ട് കാരണം അധ്വാനവും പ്രയത്നവും എല്ലാം ആളുകളുടേത് ഏതാനും ദിവസങ്ങൾ കൊണ്ട് ഈ വേനൽ കടക്കുന്ന സമയങ്ങളിലൊക്കെ നാശനഷ്ടമായി ആ തിരഹ് വിക്ക്ന്നതായിട്ടൊക്കെ നമുക്ക് പലപ്പോഴും പല വർഷങ്ങളിലും കാണാൻ സാധിക്കും പിന്നെ അതുപോലെ തന്നെ പിന്നെ അത് അങ്ങനെ വേനൽ കടുത്തു അങ്ങനെ ഒക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്ക സംഭവിച്ചു കഴിഴിയുമ്പോൾ പിന്നെയും വീണ്ടും ഒന്നേന്ന് കൃഷി ചെയ്തു ഉപജീവനത്തിനുള്ള വക കണ്ടെത്തേണ്ട ഒരു സാഹചര്യമൊക്കെ പലപ്പോഴും സംഭവിക്കാറുണ്ട് പല വർഷങ്ങളിലും തുടർച്ചയായി അങ്ങനെ പല വർഷങ്ങളിലും സംഭവിക്കാറുണ്ട് അതൊക്കെ ആളുകളുടെ ജന ജീവിതത്തേയും കുട്ടികളുടെ ഇന്ന് ആ മുമ്പോട്ടുള്ള വളർച്ചയുമൊക്കെ അത് ഒന്നു വളരെ രീതിയിൽ ദോഷകരമായി ബാധിക്കാറുണ്ട് അപ്പോൾ നമ്മൾ ഇങ്ങനെ വരൾച്ചയും ജലക്ഷമാവുമൊക്ക വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നാം ചെയ്യേണ്ടത് വെള്ളം കൂടുതലായി ലഭ്യത ഉള്ള സമയങ്ങളിൽ അത് കൂടുതൽ വെള്ളം സ്റ്റോക്ക് ചെയ്യാനുള്ള സംവിധാനങ്ങൾ നമ്മൾ കണ്ടെത്തി അത് പ്രയോജനപ്പെടുത്തുകയാണെങ്കിൽ അത് നല്ലതാണെന്ന് തോന്നുന്നു കാരണം മഴവെള്ള സംഭരണി പോലെയുള്ള ടാങ്കികളോ ആ അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ കൂടുതൽ ജല സംഭരണികളൊക്കെ ആളുകൾക്ക് എന്നാ സബ്സിഡിയോടു കൂടി സർക്കാർ സംവിധാനങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് സഹായിക്കുക ആണെങ്കിൽ ആളുകൾക്ക് അത് വളരെ ഉപകാരപ്രദമായിരിക്കും കാരണം അങ്ങനെയുള്ള ഹെൽപ്പുകളൊക്കെ കിട്ടുമ്പോൾ ജലത്തിൻ്റെ ലഭ്യത കാരണം എപ്പോഴും മനുഷ്യൻ്റെ ജീവൻ്റെ നിലനിൽപ്പിന് ആ അത്യന്താപേക്ഷിതമായ ഘടകം ജലമാണ് കാരണം ഓരോ ജീവനും നിലനിൽക്കണമെങ്കിൽ ജലം കൂടിയേ തീരുകയുള്ളു കാരണം ശരീരത്തിൻ്റെ ഓരോ മനുഷ്യ ശരീരത്തിൻ്റെയും ഇതിന് കൂടുതൽ ആവശ്യം ഉള്ളത് ജലമാണ് അപ്പോൾ വേനൽ കടുക്കുന്ന സമയങ്ങളിലും ജലക്ഷാമം നേരിടുന്ന സമയങ്ങളിലുമൊക്കെ നമുക്ക് ജലം സ്റ്റോക്ക് ചെയ്യാനുള്ള സംവിധാനങ്ങൾ നമ്മൾ ഉണ്ടാക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് അത് കൂടുതൽ ഉപകാരപ്രദം ആണെന്ന് തോന്നുന്നു അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ജലക്ഷാമം പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒരു പരിധി വരെ പരിഹരിക്കാൻ ആയിട്ട് നമുക്ക് സാധിക്കുമെന്ന് തോന്നുന്നു